ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇന്ത്യയുടെ മാനം കാത്ത ഇന്ത്യക്കൊരു പേര് എടുത്തുവെച്ച മൂന്ന് വ്യക്തികളായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ എടുത്ത് പറയേണ്ട കാരണങ്ങൾ ഇവിടെ ഉണ്ട് ഇവർക്ക് അതിനുള്ള പ്രസക്തി ഉണ്ട്

തരം തിരിക്കാൻ പറ്റത്തില്ല മൂന്ന് ആളും അതിന് അത്രയ്ക്ക് കഠിന പ്രയത്നം ചെയ്തിട്ടാണ് അവർ ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്